ഹലോ എ ബി സി ട്രാവൽ ഏജൻസി അല്ലേ ആ സാറെ ഗുഡ് മോർണിംഗ് എനിക്ക് ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് വിളിക്കുന്നതായിരുന്നു ആ പേര് ശുക്കൂർ വയസ്സ് അറുപത്തി നാല് ആ ആ ഇവിടെ കണ്ണുർ തന്നെയാണ്

സീസൺ പീക്ക് സീസൺ അല്ല അപ്പം എങ്ങനെ വിമാനങ്ങളൊക്കെ നല്ല സുലഭമായി ലഭിക്കില്ലേ ടിക്കറ്റ്സൊക്കെ വേഗം ലഭിക്കൂലെ ഏതെങ്കിലും ഓഫർ ഉണ്ടോ സാറേ ഓഫറുകളില്ല ആ ആ എന്നാൽ തിരക്കിയിട്ട് എന്നോട് ഒന്ന് പറയുമോ പെട്ടെന്ന് തന്നെ ഉണ്ടോ ഓഫർ ഉണ്ടോ ആ എന്നാൽ ഒരു നാല് ടിക്കറ്റ് വേണമായിരുന്നു എങ്ങനെ നല്ല ഒരേ സീറ്റ് തന്നെ കിട്ടില്ലേ ഒരേ റോ തന്നെ കിട്ടില്ലേ ആ ഞാൻ കുറേ ആഗ്രഹിക്കുന്നതിന് ഈ വിമാനത്തിൽ കയറാൻ വേണ്ടി അപ്പോൾ ആ ആ നല്ല സുരക്ഷയായിരിക്കും അല്ലേ ഓക്കെ സാർ താങ്ക് യൂ താങ്ക് യൂ